ആ അതെ അതെ ആ അതെ അതെ ആ ആ ആ ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ അല്ലേ ബോട്ട് ആ ആ ആ ആ എങ്ങനെയാണ് ഒറ്റക്കാണോ അതോ ഫാമിലി ആയിട്ടാണോ

ആ കുഴപ്പമില്ല ഞങ്ങളുടെ ബോട്ട് സുരക്ഷിതമായിട്ട് തന്നെയാണ് ഞങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് കുഴപ്പമില്ല നിങ്ങൾ പോരുക

ആ എല്ലാമുണ്ട് ലൈഫ് ജാക്കറ്റ് ഉണ്ട് പിന്നെ എല്ലാ ആ ഒരു ബോട്ടിലെ യാത്രയ്ക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളുമുണ്ട് ആ എല്ലാം ഉണ്ട് കുഴപ്പമില്ല സുരക്ഷിതമാണ് ആ ഡ്രൈവറ് നല്ലതാണ് പിന്നെ പത്ത് മുപ്പത് വർഷത്തെ എക്സ്പീരിയൻസുള്ള ആളാണ് കുഴപ്പമൊന്നുമില്ല ഒരു നിങ്ങൾ എത്ര പേരുണ്ട് ആ ആ കുഴപ്പമില്ല കുഴപ്പമില്ല

ആ കുഴപ്പമില്ല നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണ് പിന്നെ ഭക്ഷണം ഉണ്ട്

ആ എല്ലാം ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ എല്ലാ സൗകര്യങ്ങളും ഉള്ള ബോട്ടാണ് കുഴപ്പമില്ല ആ പോയി ആ ആ ആ ഇല്ല ഇല്ല ആ ഹാ ഹാ ഓയില് രാവിലെ മാറും ബോട്ടിൻ്റെ പിന്നെ കുഴപ്പമൊമൈന്നുമില്ല നല്ല സുരക്ഷിതമാണ് ഞാൻ പറഞ്ഞല്ലോ രാവിലെ ഒരു ആറ് ആറര ഒക്കെ ആവുമ്പോൾ തന്നെ സ്റ്റാർട്ടിങ്ങുണ്ട് ആ ആ സേഫ് ആണോ എന്നൊക്കെ രാവിലെ തന്നെ നമ്മൾ എടുക്കുന്നതിനു മുന്നേ തന്നെ എല്ലാം ചക്കെയ്യും അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്നത് മഴയുള്ളപ്പോൾ അങ്ങനെ ഓടാറില്ല അങ്ങനെ ആ കുഴപ്പമൊന്നും ഇല്ലത്ത യാത്രയാണ് സുരക്ഷിതമായ പേടിക്കണ്ട കുഴപ്പമില്ല ആ ആ ആ ശരി